എൻ്റെ വീടിനടുത്ത് ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട് അവിടെ നിന്നും ഞാൻ പുസ്തകം എടുക്കാറാണ് പതിവ് അല്ലാതെ പുസ്തകം വായിക്കുന്നതിന് ഞാൻ പ്രത്യേകം പുസ്തകങ്ങൾ വാങ്ങിക്കാറില്ല ആ ലൈബ്രറിയിൽ ഒരു നൂറ് രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്താൽ നമുക്കവിടുന്ന് ബുക്കെടുത്ത് വായിക്കാവുന്നതാണ് ബുക്കുകൾ മാത്രമല്ല അന്നന്നത്തെ പത്രങ്ങൾ അതേപോലെ തൊഴിൽ വാർത്തകൾ തൊഴിൽവീഥി തുടങ്ങിയ എല്ലാ തരത്തിലുള്ള വായനയ്ക്കും അതേപോലെ തന്നെ തൊഴിലവസരങ്ങൾക്കും വേണ്ട അത്യാവശ്യം എഴുത്തുകളും സമാഹാരങ്ങളും അവിടെ ഉണ്ട് അതെല്ലാം ക്ലബ് ഒറ്റപ്പാലം റൂട്രി ക്ലബിൻ്റെ അണ്ടറില് വരുന്ന ഒരു ലൈബ്രറിയാണ് ഒരുപാട് പേർ ഒരുപാട് നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയോ അതല്ലാതെ അവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളും മറ്റും സ്വന്തമായി മുന്നോട്ട് വന്ന് ലൈബ്രറിയിലേക്ക് ദാനം ചെയ്ത് ബുക്കുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിന് വലിയ മുതൽ മുടക്കൊന്നും അവർക്കുണ്ടായിട്ടില്ല താനും ആ അതുകൊണ്ട് ഈ ചുറ്റുവട്ടത്തിലുള്ള ഒരുവിധം എല്ലാ ആളുകൾക്കും അവിടെ വന്ന് വെറുതെ കളയുന്ന സമയം പുസ്തകങ്ങള് വായിക്കുന്നതിനും അതേപോലെ തന്നെ വരുന്ന തലമുറകളെ ഒരുപാട് പുതിയ തലമുറ ഒരുപാട് ഫ്രീ ടൈം മൊബൈലുകളിലും ലാപ്ടോപ്പുകളിലും കമ്പൂട്ടറുകളിലുമാണെങ്കിലും അവരതിൽ നിന്നും ഒന്നാകെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരുവിധം മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യത്തോടെയാണ് ഇപ്പോൾ ആ സ്ഥാപനം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്